പറഞ്ഞോളു ഓ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് നമുക്ക് ആ ഏരിയ ഫോക്കസ് ചെയ്യാം തണുപ്പുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഹിൽ ഹില്ല് ഏരിയകളാണ് കൂടുതലായിട്ട് വരുന്നത് കുന്നും പ്രദേശങ്ങൾ ആ ഈ കുന്നുംപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം കുന്നുംപ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ജില്ലകളിലായിട്ട് അതായത് മലപ്പുറം വയനാട് ഇടുക്കി അങ്ങനെ എല്ലാ ജില്ലകളിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട് പിന്നെ ഇടുക്കി ആ അതെ ഇടുക്കി പിന്നെ വയനാട് ഇതാണ് കൂടുതലായിട്ട് ഈ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് പോവുന്ന ഏരിയ അവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ വയനാട് ഇടുക്കി മേഖലയിൽ പോവുക എന്ന് പറയുമ്പോൾ മെയ്ൻ ആയിട്ട് റ്റ് ടീ പ്ലാന്റുകളാണ് അവിടെ കൂടുതലായിട്ട് ഉള്ളത് ആ ഓക്കെ ടീ പ്ലാന്റ് എന്ന് പറയുമ്പം നമുക്ക് അറിയാമല്ലോ വേൾഡിൽ എറ്റവും കൂടുതൽ ആളുകൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ടീ എന്ന് പറയുന്നത് മൂന്നിൽ രണ്ടാളുകളും യൂസ് ചെയ്യുന്നത് ടീയാണ് പിന്നെ അതുപോലെത്തന്നെ ടി പ്ലാൻസ് മെയ്ൻ ആയിട്ടും ഉള്ളത് എന്ന് പറയുന്നത് ഇടുക്കി ഇടുക്കിയിലും വയനാട്ടിലുമാണ് നമ്മളെ ഫേമസ് ടീ കമ്പനിയായ കണ്ണൻ ദേവന് എ വി ടി ഇവരെയെക്കെ പ്ലാൻറ്റുകൾ തന്നെ മൂന്നാറ് ഇടുക്കിയിലെ മൂന്നാർ എന്നുള്ള സ്ഥലത്തൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം ആ പ്രിഫെറ് ചെയ്യുന്നത് ഞാൻ പ്രിഫെറ് ചെയ്യുന്നത് അവിടെയാണ് ഇടുക്കി വയനാട് വായനാട്ടിൽ നമുക്ക് ആ ഇടുക്കിയിലാണ് മെയ്നൻ ആയിട്ട് വരുന്നത് മൂന്നാർ എന്നുള്ള ഏരിയ മൂന്നാർ എന്നുള്ള ഏരിയയിൽ നമുക്ക് അവരുടെ എല്ലാം പ്ലാൻറ്റുകളൊക്കെ കണ്ടുകൊണ്ട് ഡയറക്റ്റ് പോയി വിസിറ്റ് ചെയ്യാം നമുക്ക് ആസ്വദിക്കാം ശരി എന്നാൽ ശരി എന്നാൽ